വയനാട്ടിൽ പരിസ്ഥിതി എന്നു പറയുന്നത് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഇൻഊരു എന്ന സംരംഭമാണ് പണ്ടുകാലത്തെ ജീവിത രീതിയും ജീവിത ശൈലിയും താമസിക്കാൻ ഉപയോഗിച്ചിരുന്ന ചുറ്റുപാടും താമസ സ്ഥലങ്ങളും വിളിച്ചോതുന്നതാണ് ഇൻഊര് എന്ന പ്രദേശം മലയാളത്തനിമ വിളിച്ചോതുന്നതിൽ ഈ സംരംഭം ഉയർന്ന വിജയം കൈവരിച്ചിട്ടുണ്ട് എങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവിടുത്തെ സഹപ്രവർത്തകർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മുടെ നാടുകളിൽ ഇപ്പോൾ കൂടുതലായും സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടമായതിനാൽ അത് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന പ്രത്യേക ഒന്നാണ് അവ മുന്നോട്ട് കൊണ്ടുപോകാൻ പലരും ഒരുപാട് ബുദ്ധിമുട്ടുന്നുമുണ്ട് മനുഷ്യരുടെ ഓരോ പ്രവർത്തികൾ മൂലം ഭൂമി ഒരുപാട് നഷ്ടങ്ങൾ നേരിടുകയാണ് മരം മുറിയിലൂടെ മഴ ഇല്ലാതാവുകയും മഴപെയ്യാതെ വെള്ളമില്ലാതെ മനുഷ്യർ ബുദ്ധിമുട്ടുകയുമാണിപ്പോൾ പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്ത മനുഷ്യർ വീണ്ടും മരം മുറിക്കുക തന്നെയാണ് കുന്നും മലയും ഇടിച്ചു നികത്തി അവർ പല തരത്തിലുള്ള റിസോർട്ടുകളും പല വില്ലകളും നിർമ്മിക്കുമ്പോഴും അവർ അറിയുന്നില്ല നമ്മുടെ നാട് പിന്നീട് ഒരു വരണ്ട മരുഭൂമിയിലേക്കാണ് മാറുന്നതെന്ന് മനുഷ്യരുടെ ഓരോ പ്രവർത്തിയും നമ്മുടെ നാടിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് മനുഷ്യന്റെ പ്രവർത്തികൾ പല പ്രളയങ്ങളും നമ്മളെ വിളിച്ചോതുന്നു രണ്ടു പ്രളയം സംഭവിച്ചപ്പോളും അത് മനുഷ്യന്റെ ഓരോ ചെയ്തികളെ വിളിച്ചോതുന്നതായിരുന്നു മണ്ണിടിച്ചലും ഉരുൾപൊട്ടലും അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്